ഞാൻ വാങ്ങിയ ഹാൻഡ് ബാഗ് വളരെ വൃത്തികെട്ടൊരു ഹാൻഡ് ബാഗാണ് തീരെ ക്വാളിറ്റിയില്ല കളർ ഞാനുദ്ദേശിച്ച കളറല്ല കിട്ടിയത് അതിൻ്റെ കളറൊക്കെ ഫേഡായിട്ടുണ്ട് ഒരു സ്റ്റിച്ച് വിട്ടിട്ടുണ്ട് അതിൻ്റെ ബട്ടൺസൊക്കെ പോന്നിട്ടുണ്ട് അത് സ്റ്റിക്കോണാകുന്നില്ല അതിൻ്റെ വള്ളി ചെറുതാണ് വലുതാക്കാൻ പറ്റുന്നില്ല വളരെ മോശമായൊരു പ്രൊഡക്റ്റാണെനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഹാൻഡ് ബാഗ് ഞാനുദ്ദേശിച്ച ഹാൻഡ് ബാഗേ അല്ല ഞാൻ ഉദ്ദേശിച്ച ക്വാളിറ്റി അതിനില്ല ഞാനുദ്ദേശിച്ച കളറതല്ല ഞാനുദ്ദേശിച്ച ഒരു പ്രൊഡക്റ്റേ അല്ല അതു വളരെ നിരാശാ ജനകമാണ് ഈ അവസ്ഥ ഈ ആപ്പിൽ നിന്ന് ഞാനാ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടെനിക്ക് ഭയങ്കര നിരാശയാണ് കിട്ടിയത് ഞാനുദ്ദേശിച്ച കളറല്ലത് ഫേഡാകുന്നുണ്ട് ഒന്നു കഴുകി ഇട്ടപ്പത്തേക്ക് ഹാൻഡ് ബാഗിൻ്റെ കളറൊക്കെ പോയി അത് പെട്ടെന്നു ചളിയാകുകയും ചെയ്യും കഴുകാനും പറ്റുന്നില്ല വളരെ കഷ്ടപ്പെട്ടൊരവസ്ഥയാണിത് അതു പെട്ടെന്ന് പൊട്ടി പോകും അതിൻ്റെ തുന്നെല്ലാം വിട്ടിട്ടുണ്ട് അതിൻ്റെ കളർ ഫേഡാകുന്നുണ്ട് എനിക്ക് കഴുകാനും പറ്റുന്നില്ല അതിൻ്റെ വള്ളി ചെറുതാക്കാൻ പറ്റുന്നില്ല വലുതാക്കാൻ പറ്റുന്നില്ല